സതീ നമക്ക് ഒര് വ്യാഴാഴ്ച നമുക്കൊരു ടൂറ് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അത് നമ്മളെ രണ്ട് മൂന്ന് പേരുണ്ട് കുടുംബത്തില് അമ്മ ഉണ്ട് മോളുണ്ട് മോള് എല്ലാവരും നാലഞ്ച് പേരുണ്ട് അപ്പം ഒരു വണ്ടി വാടകയ്ക്ക് എടുക്കണം അതെത്ര രൂപയാവും നമുക്ക് ചങ്ങനാശ്ശേരിക്ക് പോകണം ഒരു ദിവസം ഫുള്ളായിട്ടുള്ള യാത്ര ഉണ്ട് അത് തിരിച്ചു വരുന്നതിന് എത്ര രൂപയാകും അതും കൂടെയൊന്ന് പറയണം ഇപ്പം വരാന് സാധിക്കുവല്ലോ അല്ലേ സമയവും അതെല്ലാം ക്ലിയറായിട്ട് പറയണേ അപ്പഴ് എന്നാണു സാധിക്കുക രണ്ട് ദിവസത്തിനകം പറയണം ഓക്കെ